ഞാനൊരു അതായത് ഞാനെന്റെ ഫ്രണ്ട് പിന്നെ പറഞ്ഞിട്ടാണ് ഈ ഫോണെടുത്തത് റിയൽമി ഫൈവ് ഐ ആണ് എടുത്തത് നൂറ്റിയിരുപത്തെട്ട് ജി ബി റാം ഉണ്ട് അപ്പം നല്ല ക്യാമറയാണ് നല്ല നല്ല ക്വാളിറ്റീസാണെന്ന് അവൾ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഞാനിങ്ങനെ എടുക്കാൻ ഇരിക്കുകയായിരുന്നു ഫോണ് അപ്പം ഫുൾ എന്താ പറയുക നമ്മുടെ കയ്യിൽ പൈസയ്ക്കനുസരിച്ചുള്ള ഒരു ഫോണായിരുന്നു അതായത് പിന്നേ എൻറെ കയ്യിൽ ഒരു പതിമൂവായിരം രൂപ ഉണ്ടായിരുന്നു ആ പതിമൂവായിരം രൂപയ്ക്ക് ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞങ്ങളൊന്ന് ഫ്ലിപ്പ്കാർട്ടിൽനിന്നാണ് ഓർഡർ ചെയ്തത് കടയിൽ പോയിട്ടല്ല മേടിച്ചത് നല്ല അടിപൊളി ഫോണാണ് ക്യാമറയ്ക്കൊക്കെ അത്യാവശ്യം ക്ലിയറുണ്ട് നല്ല ചാർജ് ചാർജറൊക്കെ നല്ലോണം നല്ല ചാർജർ ആണ് പിന്നെ കൂടെ ഹെഡ്സെറ്റ് കിട്ടി ഇപ്പോൾ നമുക്ക് അങ്ങനെ ഹെഡ്സെറ്റൊന്നും കിട്ടന്നില്ലല്ലോ പക്ഷേ ഇതിൻറെ കൂടെ ഹെഡ്സെറ്റ് കിട്ടി എന്തുകൊണ്ടും ഇത് നല്ലൊരു ഫോണാണ് വേറെ കുഴപ്പമൊന്നുമില്ല